ഇതൊരു കോയിക്കോടത്തെ കുക്കല്ലെ ആ ഞാൻ പരസ്യം കണ്ടിട്ട് വിളിക്കുന്നതാണ് പരസ്യം കണ്ടിട്ട് വിളിക്കുന്നതാണ് നമ്പർ എനിക്ക് കേരളത്തെ രാവിൽത്തെ ബ്രേക്ക് ഫാസ്റ്റ് വാങ്ങാനായിരുന്നു ആ ഫേമസ് ആയിട്ടുള്ള ആ

ഒരു കോംമ്പോ ആയിട്ടല്ലെ ഉണ്ടാവുക ഒരു കോംമ്പോ ആയിട്ടാണൊ ഉണ്ടാവുക

ആ ഇതിൻ്റെയൊക്കെ റൈറ്റ് എവിടെയാണ് വരിക

ആ ആ ആ ആ ഓക്കെ